റെഡിമെയ്ഡ് വസ്ത്രങ്ങളിൽ നിന്ന് കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങള് കൂടുതലായിട്ടും ആൾക്കാര് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാല് കൈകൊണ്ട് നിർമ്മിക്കുന്ന അല്ലെങ്കില് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന വസ്ത്രങ്ങള് പെട്ടെന്ന് അത് നശിച്ചുപോകുന്നില്ല അല്ലെങ്കില് കീറുകയോ അല്ലെങ്കിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങള് ഉണ്ടാകുന്നില്ല റെഡിമെയ്ഡ് വസ്ത്രങ്ങളിൽ എപ്പോഴും മെഷിൻ വഴിയുള്ള പ്രവർത്തനങ്ങളോ വന്ന് കൂടുതലും അങ്ങനെയായിരിക്കും മെഷിൻ വർക്ക് വഴിയായിരിക്കും കൂടുതലും ഇത് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകള് ആ റെഡിമേയ്ഡ് വസ്തുങ്ങളില് നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊരു കടയില് പോയി ഒരു റെഡിമേയ്ഡ് ഒരു ചുരിദാറോ ഒരു നൈറ്റിയോ എന്തെങ്കിലും എടുത്തുകഴിഞ്ഞാല് അതിലൊരുയൊറ്റ അടിപ്പ് മാത്രമേ ചിലപ്പോള് കാണുകയുള്ളൂ ആ അടിപ്പ് നമ്മള് വീട്ടില് കൊണ്ടുവന്ന് വീണ്ടുമൊന്ന് സ്റ്റിച്ച് ചെയ്യാതെയിട്ടാല് അതുറപ്പായിട്ടും പിറ്റേ ദിവസം അത് കീറിയിരിക്കും അതാണ് കൂടുതലായിട്ട് ആ തയ്ച്ച തുണി നമ്മള് തയ്ച്ച തുണിയാണെങ്കില് ഒരാളെക്കൊണ്ട് തയ്പ്പിച്ച തുണിയാണെങ്കില് അത് കറക്റ്റായിട്ട് ഒരു സ്റ്റിച്ചിങ് ഇതിൻ്റെ കൂട്ടത്തില് അടുത്തൊരു സ്റ്റിച്ചിങ്ങുണ്ട് അപ്പം ഒരെണ്ണം പോയാലും ആ ഒരു അടുത്ത സ്റ്റിച്ചിങ്ങ് അവിടെത്തന്നെ കാണും അപ്പം അത് കുറച്ച് കൂടുതൽ കാലം നമുക്കത് ഈട് നില്ക്കും നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അതാണ് ഈ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും കൈകൊണ്ട് തുന്നിയ വസ്ത്രങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം കൂടുതലാളുകള് ഇത് ഇതുതന്നെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത വസ്ത്രങ്ങള് തന്നെ ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കില് കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങള് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ റെഡിമേയ്ഡ് വസ്ത്രങ്ങള് ചിലപ്പോള് എല്ലാവർക്കും അത്ര പാകമായിരിക്കണമെന്ന് നിർബന്ധമില്ല ഈ സാധാ നമ്മള് ഒരാളുടെ അളവെടുത്ത് തുണി കൊണ്ടുപോയി കൊടുക്കുമ്പോള് അതിന്റെ അളവനുസരിച്ച് ഒരാളുടെ ബോഡിക്ക് അനുസരിച്ചുള്ള അളവെടുത്ത് കൊടുത്തു തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോള് അത് കറക്റ്റ് പാകമായിരിക്കും റെഡിമേയ്ഡ് വസ്ത്രങ്ങളെടുത്താല് അത് വീണ്ടും നമ്മള് സ്റ്റിച്ച് ചെയ്യണം അതിന് വണ്ണം കുറയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം അപ്പം ഒരു പുതിയ തുണി തുന്നിയെടുത്ത് തയ്ച്ച് വരുന്നതിൻ്റെ ഇരട്ടിപ്പണിയാണ് ഒരു റെഡിമെയ്ഡ് വസ്ത്രമെടുത്താല് മിക്കപ്പോഴും എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത വസ്ത്രമാണ് നമ്മള് ഉപയോഗിക്കുന്നതെങ്കില് അത് നമ്മുടെ അളവിനും ബോഡിക്കും കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളെ അപേക്ഷിച്ച് തുന്നിയ വസ്ത്രങ്ങളായിരിക്കും സാധാരണ എല്ലാവരും ചൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെയെന്ന് പറഞ്ഞാല് വിപണിയിലെ റെഡിമേയ്ഡ് വസ്ത്രങ്ങളില് നിന്ന് കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള അന്സര് ഞാൻ പറഞ്ഞുകഴിഞ്ഞു റെഡിമേഡ് വസ്ത്രങ്ങളുടെ വലിയ വിപണികളുണ്ടെങ്കിലും ആളുകളിപ്പോഴും നെയ്തതും തുന്നിയതുമായിട്ടുള്ള വസ്ത്രങ്ങള് കണ്ടെത്തുന്നു റെഡിമെയ്ഡ് വസ്ത്രങ്ങള് ഇഷ്ടംപോലെ കിട്ടാനുണ്ട് എത്ര വേണമെങ്കിലും കിട്ടും പക്ഷേങ്കില് അതിനനുസരിച്ച് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് റേറ്റ് നല്ല വസ്ത്രങ്ങള് നമ്മള് തുന്നിയെടുക്കുകയാണെന്ന് വെച്ചാല് റേറ്റ് കൂടുതലായിരിക്കും എങ്കില്പ്പോലും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് തുച്ഛമായ വിലയില് നമുക്ക് കിട്ടും പക്ഷെ അത് നമ്മള് ആ തുച്ഛമായ വില കാര്യമാക്കാത്തതുകൊണ്ട് ഇത്തിരി പൈസ കൊടുത്ത് തുണി തുന്നിയെടുത്താല് അത് ഏറെക്കാലം നിലനിൽക്കും